കേരളസർക്കാർ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ടോയെന്നു ചോദിച്ചാൽ അത് നമ്മുക്കങ്ങനെ തീർത്തും അവർ പരിഹരിച്ചു കൊടുക്കുന്നു എന്നു പറയാൻ പറ്റില്ല കാരണം കേരളസർക്കാരെന്നല്ല പൊതുവെ നമ്മൾ കണ്ടു വരുമ്പം എല്ലാവർക്കും അങ്ങനെ ഒരു അവസരം കിട്ടാറില്ല എല്ലാവരുടെ അടുത്തും രക്ഷാപ്രവർത്തനങ്ങൾ എത്താറില്ല അതൊക്കെ വളരെ കഷ്ടമാണ് വളരെ തുച്ഛമായ ആൾക്കാരുടെ കയ്യിലാണ് എന്തെങ്കിലും സഹായം എത്താറുള്ളത് അഴിമതിയാണോയെന്നു ചോദിച്ചാൽ അറിയില്ല അതോ ഇവർക്കെല്ലാവരുടെ അടുത്തും എത്തിച്ചേരാൻ പറ്റാത്തതിൻ്റെ കുറവാണോയെന്നും അറിയില്ല പക്ഷെ നമ്മളിപ്പോൾ നോക്കുമ്പം ഫ്ലഡ് വന്ന വെള്ളപ്പൊക്കം വന്ന സമയം ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ കേരള സർക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നു കോവിഡിൻ്റെ ടൈമിലാണെങ്കിലും ഒരുപാട് രക്ഷാപ്രവർത്തങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം അവർക്ക് വീട് കിട്ടിയോയെന്നുള്ളതും അതൊക്കെ ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നതേയുള്ളു പത്തുലക്ഷം കൊടുത്തൊരു വീട് വയ്ക്കുകയെന്നു വച്ചാൽ അതൊന്നും അത്രയും നടക്കുന്ന കാര്യമല്ല പത്തുലക്ഷത്തിലൊന്നും വീട് വയ്ക്കാൻ പറ്റില്ല ഇപ്പം കേരളസർക്കാർ വച്ചു കൊടുക്കുന്നുണ്ട് വീട് അതൊന്നും ഇല്ലായെന്നല്ല പക്ഷെ എത്രപേർക്ക് കിട്ടുന്നുണ്ട് എല്ലാവർക്കും അത് കിട്ടുന്നില്ല ഇപ്പം നമ്മുടെ കോസ്റ്റൽ ഹേയ് ഏരിയയിലൊക്കെ ഏരിയാസിലൊക്കെ പോയി നോക്കിയാൽ അവിടെ ഇപ്പോഴും ഒരുപാടുപേർ കഷ്ടപ്പാടിൽ താമസിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാടുപേരുടെ വീട് കടലുകയറി പോയിട്ടുണ്ട് പക്ഷെ അവരുടെ അവരുടെ അടുത്തൊന്നും സഹായമോ ഒന്നും എത്തിയിട്ടില്ല പിന്നെ ഗാർഹിക പീഡനം എന്നു പറയുമ്പം കേരളം പോലത്തെ ഒരു അത്യാവശ്യം എല്ലാവരും കാര്യമായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പം അങ്ങനത്തെ ഒരു ഒരു സ്റ്റേറ്റിൽ ഇപ്പോഴും ഗാർഹിക പീഡനമൊക്കെ ഉണ്ടെന്നു വച്ചാൽ അത് നമുക്കൊരു ജയമായിട്ട് പറയാൻ പറ്റില്ല ഇത്രയും പഠിച്ചു വിവരമുള്ള ആൾക്കാർ ഇപ്പോഴും ഇതുപോലത്തെ പ്രവർത്തികൾ ചെയ്യുന്നു എന്നു വച്ചാൽ അങ്ങനെയുള്ള ഒരു വളർച്ച ഇവിടെ വന്നിട്ടില്ല സർക്കാരും അതിനായിട്ട് ഒന്നും ചെയ്തിട്ടുമില്ല പിന്നെ മാലിന്യമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ റോഡുവരി റോഡ് സൈഡിലൊക്കെ ഒരുപാട് മാലിന്യമുണ്ട് ഹരിതകർമസേന വന്നു എടുക്കുന്നു പോവുന്നു എന്നൊക്കെ പറഞ്ഞാലും ഇതെവിടെയാണ് ഈ മാലിന്യം അവർ കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുന്നതെന്നോ അല്ലാതെ ഈ മാലിന്യം മാറ്റിക്കളയാനുള്ളതായിട്ടോ ഒന്നും ഒരു പ്രൊജക്റ്റ് ഇതുവരെയായിട്ടും അവർ കംപ്ലീറ്റായിട്ട് ഇമ്പ്ലിമെൻ്റ് ചെയ്തിട്ടില്ല ഒരുപാട് ഇനി ഒരുപാട് വ്യക്തം ഇത് ഒരുപാട് അവർ മാറ്റങ്ങൾ വരുത്താനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് വളർച്ചക്കും എല്ലാത്തിനുമായിട്ട്